ഹലോ ആര്യ ഹോട്ടലല്ലേ ആ ഞാൻ അങ്കമാലി നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ അവിടെ വരാറുള്ള ആൾക്കാർ തന്നെയാണ് ആ നമുക്ക് അവിടെ ഈവനിങ്ങ് ഒരു പാർട്ടിയുടെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ആ ആ ഒരു രണ്ട് ഫാമിലിക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനായിട്ട് കുറച്ച് പേർക്ക് ഫുഡ്ഡ് അറേഞ്ചെ് ചെയ്യാനായിരുന്നു അപ്പം നമുക്ക് അത് നേരത്തെ ബുക്ക് ചെയ്യണോ ആ ടേബിള് അതുപോലെ തന്നെ ഞങ്ങൾ രണ്ട് വണ്ടിയുണ്ടാവും അപ്പോൾ നമ്മൾക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം അവൈലബിളായിരിക്കുമോ ഓക്കെ നമ്മൾക്ക് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഇതിന് വേണ്ടിയിട്ട് ടേബിളിന് വേണ്ടിയിട്ട് ആ നമുക്ക് ഒരു കേക്കും അറേഞ്ച് ചെയ്യണം ആ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് നിങ്ങൾ എത്ര മണി വരെയുണ്ടാവും ഒരു ടെണ്ണോ ക്ലോക്ക് വരെയാണോ ഉണ്ടാവുക അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഒരു നൈനോ ക്ലോക്കാവുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിക്കൊളാം ഓക്കെ താങ്ക് യു